ഞാന് ഈയിടെ ഒരു ഹെഡ്ഫോൺ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല കമ്പനിയുടെ ഹെഡ്സെറ്റ് തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതില് സംഭവം കറക്റ്റ് ടൈമിൽ വന്ന് പാക്കിങ് കാര്യങ്ങളൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല ഒരു ഡാമേജും കാര്യങ്ങളൊന്നും എൻ്റെ കിട്ടുമ്പോൾ ഡാമേജും കാര്യങ്ങളൊന്നുമില്ല കുഴപ്പമില്ല അത്യാവശ്യം വാട്ടർ പ്രൂഫ് റെസിസ്റ്റൻറ്റ് ഒക്കെ തന്നെയാണ് പിന്നെ ബ്ലൂടൂത്ത് ഹെഡ് സെറ്റാണ് നല്ല കണക്റ്റിവിറ്റി കാര്യങ്ങളുണ്ട് സൗണ്ട് പക്കയാണ് കുഴപ്പമൊന്നുമില്ല വേറെ നോയിസ് പിന്നെ കോൾ ചെയ്യണ സമയത്ത് വേറെ നോയിസ് ഒന്നും വരുന്നില്ല എല്ലാം കൊണ്ടും എനിക്ക് നന്നായി തോന്നി പിന്നെ ചാർജും അത്യാവശ്യം പറഞ്ഞപോലെ ഒരു മൂന്ന് നാല് മണിക്കൂർ ഒക്കെ ചാർജ് നില്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടും വളരെ നന്നായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്